മാധ്യമങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രാവർത്തികമാക്കുന്ന വിവരങ്ങളുടെ കാത്ത് സൂഷിക്കുന്നുണ്ടെന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ പേര് പരാമർശിക്കാതെ അല്ലെ ആ വ്യക്തിയെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പല കാര്യങ്ങളും പറയുകയും അവരിടെ ജീവിതത്തെ തന്നെ തേജോ വജ് വധം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുവേം ചെയ്യുമ്പോൾ അതിൽ ഓരോരുത്തർക്കും ആ വ്യക്തിക്കും അതിലേറെ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർക്കും എത്രയേറെ വിഷമങ്ങളാണ് ഓരോ മാധ്യമങ്ങളും വരുത്തി വരുത്തി വയ്ക്കുന്നത്

അവരിലെ നന്മകൾ പറയുകയും അല്ലെങ്കിൽ അവരെ ഇഷ്ടമില്ലാത്ത ഒരു ഇതാണെങ്കിൽ അവരെക്കുറിച്ച് എന്തൊക്കെയോ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും എല്ലാം സംസാരിക്കുകയും അവരെ ജീവിതത്തിൽ ഉയരാൻ തന്നെ സാഹചര്യ ബ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ വളരെയേറെ വിഷമങ്ങൾ തോന്നാറുണ്ട് പക്ഷേ ഇത് എല്ലാം എഴുതുന്നതും കേൾക്കുന്നതും ചെയ്യുന്നത് ശരിയാണോ അങ്ങനെ ഉള്ളൊരു സംവിധാനം ചെയ്ത് ഒത് ചെയ്യുന്നില്ല അവർക്ക് എത്ര റേറ്റ് കിട്ടുന്നു അവർ അവരുടെ ന്യൂസ് ആരെല്ലാം കാണുന്നു അവർക്ക് എന്താണ് അവർ ആ വ്യക്തിക്ക് എന്താണ് ഇതുകൊണ്ട് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് സംബവിക്കുന്നത് ലെ ചിന്തിക്കാതെ അവർക്ക് എന്താണ് ഉയരേണ്ടത് അവർക്ക് അവരുടെ ഇതിന് കൂടുതൽ കിട്ടുന്നുണ്ടോ എന്നാണ് ആ ഇതുവഴി സംഭവി ഇന്ന് സമൂഹത്തിൽ കൂടുതൽ നടക്കുന്നത് യ നല്ല കാര്യങ്ങളാണെങ്കിൽ അതിന് എടുത്ത് കാണിക്കാനോ അതിങ്ങനെ ചെയ്തു എന്ന് പറയാനോ അതില്ല നെഗറ്റീവ് ആണെങ്കിൽ അതിനെ കുറിച്ചൊരു പത്ത് ദിവസമോ ഒരു പതിനഞ്ച് ദിവസമോ ഇട്ടിട്ട് പറഞ്ഞ് പറഞ്ഞ് അതും കണ്ട് കണ്ട് കണ്ട് അത് നെഗറ്റീവ് ആയി മനുഷ്യരുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്നിടം വരെ അതിനെ ഇട്ട് കാണിക്കാനായിട്ട് ഒരു ശ്രമം നടക്കുന്നത് ചെലപ്പ് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് എന്നാൽ ആ നന്മ വന്നിട്ട് അത് ഇടുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമവും ഇതിനെക്കുറിച്ച് തോന്നാറുണ്ട് അതെല്ലാം ഓരോ ചില വ്യക്തികളുടെ സ്വാതന്ത്രമായിരിക്കും അഭിപ്രായം ആയിരിക്കും പക്ഷേ ആ വ്യക്തികളോട് ആ ഇരയായ വ്യക്തികളോട് ചെയ്യുന്ന ഒരു ദ്രോഹമല്ലയോ എന്നോർത്ത് നമുക്ക് ചില സമയത്ത് വിഷമങ്ങളും തോന്നാറുണ്ട് ഓരോത്തരുടെയും സ്വഭാവം അവർ ചെയ്യുന്ന പ്രവൃർത്തിയിലും കാണിക്കും എന്നുള്ളതായിരിക്കും ഓരോ ചാനൽ ആ എന്താണെന്ന് അറിഞ്ഞുകൂടാ ശരി